മുടിയുടെ സംരക്ഷണത്തിനായിട്ട് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും കയ്യോന്നി ഇത് കറിവേപ്പ് അങ്ങനെയുള്ള പലയിതിലും ഉപയോഗിക്കാം പിന്നെ നമ്മുടെ നാട്ട് ചെമ്പരത്തി താളി നെല്ലിക്കാപ്പൊടി അങ്ങനെ ഉള്ള ഇതെല്ലാം ഉപയോഗിച്ച് നമ്മൾ എണ്ണ കാച്ചി തലയും തലമുടി സംരക്ഷണത്തിന് ഉപയോഗിക്കുന്നു അത് കണക്കു തന്നെ നമ്മുടെ ചർമ്മത്തിനായിട്ട് പഴയ ആൾക്കാര് തന്നെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന പയറുപൊടി പയറുപൊടി ചർമ്മത്തിന് ഏറ്റവും നല്ല ഇതാണ് സോപ്പിനേക്കാൾ ഒക്കെ നല്ല രീതിയിൽ ചർമ്മത്തിന് സംരക്ഷണം നൽകാനായിട്ട് പയറു പൊടിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് നല്ലതാണ് നല്ല രീതിയിൽ നമുക്ക് ചർമ്മ സംരക്ഷണത്തിന് ഉപയോഗിക്കാവുന്ന ഒന്നാണ് പിന്നെ മുടിയുടെ ഇതിനായിട്ട് നമുക്ക് കൂടുതലായിട്ടും നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഉപയോഗിച്ച് വരുന്ന കയ്യോന്നിയും ചെമ്പരത്തി താളിയും അത് കണക്കുതന്നെ നമ്മുടെ തേയില തേയില വെള്ളം തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ച് ആറിയതിനു ശേഷം അതിൽ അത് അതുകൊണ്ട് മുടി കഴുകുന്നതും അത്യുത്തമമാണ് മുടി പൊട്ടൽ മുടിയിലെ തലയിലെ താരൻ എന്നിവയൊക്ക മാറാനായിട്ട് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നതും നല്ലതാണ് നമ്മുടെ തലയ്ക്ക് ഏറ്റവും ഉത്തമമായ തണുപ്പ് നൽക്കുന്നതുമായ നമ്മുടെ ഇത് തലയിലെ പേൻ ശല്യം അങ്ങനെയുള്ളതൊക്കെ മാറാനായിട്ട് നല്ലതാണ് എടുക്കണ ഷാംപുവിന് പകരമായിട്ട് നമുക്ക് താളി ഉപയോഗിക്കാവുന്നതാണ് ചെമ്പരത്തിയിലയും ചെമ്പരത്തിപ്പൂവും ചെമ്പരത്തിമൊട്ട് എന്നിവയെല്ലാം ധാരാളമായിട്ട് നമ്മൾ കൂടുതൽ തലയിൽ തേക്കുകയാണെങ്കിൽ നമ്മുടെ തലയിലെ ചെളി ഒക്കെ പോകുന്നതിന് അത്യുത്തമമാണ് ഷാമ്പൂകൾ ഇപ്പോൾ പ്രചാരത്തിലുള്ള ഷാമ്പൂ മറ്റു സംഭവം മറ്റുള്ള ഇതെല്ലാം മേടിച്ച് നമ്മൾ തലയിൽ പുരട്ടുന്നതിനേക്കാൾ ഏറ്റവും അത്യുത്തമം നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചെമ്പരത്തിയുടെ ഇല ചെമ്പരത്തിത്താളി അതൊക്കെ ഉപയോഗിക്കുന്നതായിരിക്കും കയ്യോന്നി ചെമ്പരത്തിയില ചെമ്പരത്തിയുടെ മൊട്ട് പിന്നെ നമ്മുടെ നാട്ടിൽത്തന്നെ ഉള്ള ഈ നെല്ലിക്ക നമ്മുടെ നാടൻ നെല്ലിക്ക ഉണക്കിപ്പൊടിച്ചത് അതെല്ലം ഉപയോഗിച്ച് എണ്ണകാച്ചി തലയിൽ തേക്കുകയാണെങ്കിൽ മുടി സംരക്ഷണത്തിന് ഏറ്റവും അത്യുത്തമമാണ് മുടി വളരുന്നതിനും നമുക്ക് തലയിൽ മറ്റു പ്രോബ്ലംസൊന്നും ഉണ്ടാകാതെ നല്ല രീതിയിൽ മുടിയെ നന്നായി കൊണ്ടുനടക്കുന്നതിന് ഏറ്റവും നല്ലതാണ് അത് കണക്കുതന്നെ പയറുപൊടി സോപ്പിനെക്കാളും സോപ്പിലെ മറ്റു കെമിക്കൽസുകൾക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് ഈ പിന്നെ പയറുപൊടി ഉപയോഗിക്കുന്നത് ചർമ്മ സംരക്ഷണത്തിന് നല്ലതാണ് അത് കണക്കുതന്നെ കറിവേപ്പില ഉപയോഗിച്ച് കറിവേപ്പില കൂടുതലായിട്ട് കറ്റാർവാഴ എന്നിവയൊക്കെ ഇട്ട് എണ്ണമുറുക്കി തലയിൽ തേക്കുകയാണെങ്കിൽ മുടി ധാരാളമായി വളരുന്നതിനും തലയിലെ താരൻ പേൻശല്യം മറ്റേതും പോയി നല്ല രീതിയിൽ നമുക്ക് മുടി സംരക്ഷിക്കുന്നതിനും അത്യുത്തമമായ ഒരു അത് നമ്മുടെ നാട്ടിൽത്തന്നെ കിട്ടുന്ന ഒന്നാണ് അതുകൊണ്ട് എണ്ണകാച്ചി തലയിൽ തേക്കുന്നത് നല്ല ഒരു നല്ല കാര്യങ്ങളാണ് അല്ലാതെ